എനിക്ക് സന്ദർശിക്കാൻ ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലങ്ങളെന്നു പറയുന്നത് ഹിൽ സ്റ്റേഷനുകളാണ് അതായത് ഹിൽ സ്റ്റേഷനുകളിൽ പ്രത്യേകിച്ച് മലനിരകളൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് അവിടത്തെ കാലാവസ്ഥ ഒരു തണുപ്പു നിറഞ്ഞ ഒരു കാലാവസ്ഥ എനിക്ക് ഇഷ്ട്ടമാണ് അതുകൊണ്ടു തന്നെ അങ്ങനെയുള്ള സ്ഥലങ്ങളായിരിക്കും വിനോദ സഞ്ചാരത്തിനായി ഞാന് ചൂസെയ്യുക മൂന്നാറ് ഊട്ടി പോലെയുള്ള സ്ഥലങ്ങള് വയനാട് ഭാഗം അങ്ങനെയൊക്കെ ആയിരിക്കും എനിക്ക് ഞാൻ കൂടുതല് കംഫർട്ടബിള് ആയിട്ടുള്ളത് അതുകൊണ്ടു തന്നെ അങ്ങനെയുള്ള സ്ഥലങ്ങളാണ് ഞാൻ ചൂസ് ചെയ്യുകയും മൂന്നാറിലൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാല് നമുക്ക് ഒരുപാട് കാപ്പി തോട്ടങ്ങളും അവിടെ വളരേ ശാന്തമായ അന്തരീക്ഷവും പിന്നെ ഒരു തണുപ്പ് നിറഞ്ഞ ക്ലൈമറ്റ് ആയിരിക്കും എപ്പോഴും ഉണ്ടാവുക അപ്പം അതൊക്കെ എനിക്ക് എൻ്റെ ശരീരത്തിനും ഭയങ്കര കംഫർട്ടബിള് ആയതുകൊണ്ടു തന്നെ അതായിരിക്കും കൂടുതല് ചൂസ് ചെയ്യുക